സർക്കാർ ആശുപത്രിയിലെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവിടുത്തെ സേവനത്തെക്കുറിച്ച് നല്ല ആരോഗ്യ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാഴ്ച്ച വയ്ക്കുന്നത് എന്താ പറയുക ഹെൽത്ത് സെൻ്ററ് പോലുള്ള ചെറിയ ആരോഗ്യ കേന്ദ്രങ്ങളിൽപ്പോലും ഒരുപാട് ആളുകളെത്തുന്നുണ്ട് അതവരുടെ സേവനങ്ങൾ കൊണ്ടുതന്നെയാണ് നല്ല ആ അടിപൊളി ഡോക്ട്ർമാരാണുള്ളത് നല്ല നല്ല ഹൗസ് സർജൻസി കഴിഞ്ഞ നല്ല രീതിയിലുള്ള ഡോക്ടർമാരുണ്ട് ഇപ്പോൾ ആയിക്കോട്ടെ കണ്ണ് ആയിക്കോട്ടെ പല്ലായിക്കോട്ടെ ശരീരം ഫുള്ളുള്ള എല്ലാത്തിനുള്ള ഡോക്ടർമാരുണ്ട് അതും ട്വൻ്റി ഫോർ അവേഴ്സുണ്ട് എന്നതാണ് ഇതിൽനിന്നൊരു അർജൻ്റ് കാര്യത്തിന് എത്തണമെങ്കിൽപ്പോലും പെട്ടെന്ന് എത്തി അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം സ്വകാര്യ ആശുപത്രികളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം പൈസയാവും നമ്മളിപ്പം റൂമെടുത്താൽപ്പോലും അങ്ങനെ അല്ലെങ്കിൽപ്പോലും മരുന്നുകൾക്കാണെങ്കിലും നല്ല പൈസയാവും എങ്കിൽപ്പോലും സർക്കാർ ആശുപത്രികളിൽ ആനുകൂല്യങ്ങൾ ഉള്ളതുകൊണ്ടുതന്നെ

അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലായിടത്തും പോവുന്നതും ഇപ്പം കുറച്ച് പൈസയാകുന്നത് എന്താ പറയുക സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽപ്പോലും രണ്ടിൻ്റേയും പ്രവർത്തനം ഒന്നുതന്നെയാണ്